സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് എന്നിവ ഇപ്പോഴത്തെ എല്ലാതരം ആൾക്കാരും ഉപയോഗിച്ചുവരുന്ന സാങ്കേതിക വിദ്യകളാണ് ഉദാഹരണത്തിനു ടെക്നോളജി നമുക്കിതു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പണ്ട് ഒരു സ്ഥലത്തു പോകണമെങ്കിൽ ആൾക്കാർ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതിനുശേഷം കാളവണ്ടികൾ കാള വലിക്കുന്ന വണ്ടികൾ വന്നു തുടങ്ങി അതിനുശേഷം എൻജിനീയറിങ്ങിന്റെ മികവു കൊണ്ടാണ് മോട്ടർ വെച്ച കാറുകൾ വന്നത് അപ്പം ആൾക്കാർക്ക് കുറച്ചു കൂടി വെ വേഗതയിലും കുറച്ചു കൂടി സേഫായിട്ടും സ്ഥലങ്ങളിൽ എത്താനായിട്ട് സാധിക്കുന്നു പിന്നെ ഒരു സ്ഥലത്തു പോകണമെങ്കിൽ പണ്ടൊക്കെ വഴികൾ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചു വേണം പോകേണ്ടി വരുന്നത് ഇപ്പം ജി പി എസ് സാറ്റ്ലൈറ്റ് എന്നീ ടെക്നോളജികൾ എന്നീ സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ടു തന്നെ മാപ്പ് നമുക്കു ചെറിയ സ്ക്രീനുകൾ മൊബൈൽ സ്ക്രീനുകളിൽ വെച്ച് സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെ ഉപയോഗപ്പെടുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ രാത്രികാലങ്ങളിലൊക്കെ ആളുകളൊന്നും ചോ വഴി ചോദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മാപ്പിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതല്ല പിന്നേ ഈ കമ്പ്യൂട്ടർ പോലത്തെ സാങ്കേതികവിദ്യകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് പണ്ടൊക്കെ ഓഫീസ് വർക്കിലൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ നം ആൾക്കാർ മാനുവലി എഴുതേണ്ട സാഹചര്യമായിരുന്നു ഇപ്പം കമ്പ്യൂട്ടറിൽ കീബോർഡുപയോഗിച്ച് ടൈപ് ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പിന്നെ സാങ്കേതികവിദ്യ വളർന്ന് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിലൂടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യുകയും അതിനെ ഡോക്യുമെൻറ്റോ ടെക്സ്റ്റോ ഒക്കെ ആക്കി നൽകുകയും ചെയ്യുന്നു അതേപോലെ കണക്കു കൂട്ടുന്നതായ പോലും കാൽക്കുലേറ്റർ പോലത്തുള്ള ഡിവൈസുകൾ ഇപ്പോഴത്തെ മിനി കമ്പ്യൂട്ടറായ മൊബൈലിലൂടെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഇതെല്ലാം സയൻസും ടെക്നോളജിയുടെയും മനുഷ്യ സയൻസും ടെക്നോളജിയും മനുഷ്യരാശിക്ക് നൽകിയ നല്ല നല്ല സംഭാവനകൾ തന്നെയാണ് ഇത് പലരും ആളുകളെല്ലാരും തന്നെ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് എല്ലാം തന്നെ ഇതിനെപ്പറ്റിയുള്ള അവബോധം വളരെ കുറവാണ് ഉദാഹരണത്തിന് ഒരു സൈഡിൽ മൊബൈൽ ഫോണുകൾ നമുക്ക് നല്ലതല്ലെന്നു പറയുമ്പോൾ പോലും എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ പല കണക്കുകളെടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ളവരും ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാൽ പോലും എല്ലാവരും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ടെക്നോളജിയിൽ ഏറ്റും വലിയ മാറ്റം ഇതൊക്കെ തന്നെയാണ്